തിരഞ്ഞെടുപ്പ് സമയത്ത് കൂടുതലും നമ്മൾ നേരിടേണ്ടിവരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഉള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറേ പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടതായി വരുന്നുണ്ട് അതായത് ഇപ്പോൾ കൂടുതലും നമ്മൾ കണ്ടുവരുന്നതെന്താണെന്ന് വച്ചു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ അതായത് വോട്ടിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന പ്രശ്നം എന്താണെന്ന് വച്ചു കഴിഞ്ഞാൽ കൂടുതലും ക്യൂവും കാര്യങ്ങളൊക്കെയാണ് പ്രായമായവരൊക്കെ കൊണ്ടൊക്കെ പോവുകയാണെങ്കിൽത്തന്നെ തിരക്ക് ആൾക്കാർക്കൊക്കെ ജോലിത്തിരക്ക് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടുതന്നെ അവർ കറക്റ്റ് സമയത്ത് ഓട്ട് ചെയ്യണമെന്നൊന്നും ഇല്ല അപ്പോൾ അവർ വരുമ്പോൾ അവർക്ക് അതിൻ്റേതായ ഒരു സാഹചര്യത്തോടെ ഒരുക്കിക്കൊടുക്കാനും നമുക്ക് പറ്റിക്കൊള്ളണം എന്നില്ല അപ്പോൾ അതിനുവേണ്ടിയിട്ട് നമുക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ട് എന്താ പറയുക നല്ലൊരു പ്രശ്നം തന്നെ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട് പിന്നെ കറക്റ്റ് ടൈമിൽ എന്താ പറയുക സമയമൊന്നും ഇല്ല അപ്പോൾ നമ്മൾ ചെല്ലുന്ന സമയത്തുതന്നെ ഒരുപാട് ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ഇതിനകത്തൊരു വലിയ പ്രശ്നമാണ് പിന്നെ എന്താ പറയുക ഇപ്പോൾ പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വോട്ടുചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വച്ചു കഴിഞ്ഞാൽ ഓരോ സ്ലോട്ടുകൾ അതായത് അങ്ങനത്തെ സാധനങ്ങളൊക്കെെ ആയിരുന്നു ഇപ്പം മിഷീൻസൊക്കെ ആയതുകൊണ്ടുതന്നെ എന്താ പറയുക പ്രായമായവർക്കൊക്കെ അത് ഉപയോഗിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളാണ് ഈ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ നേരിടേണ്ടതായിട്ട് വരുന്നുള്ളത് പിന്നെ ഓരോ പാർട്ടികളും ഓരോ കാര്യങ്ങളൊക്കെയാണ് പറയുക അതൊന്നും പോസിബിളായിട്ട് വരുന്നില്ല